പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസന്ന് ചോദിച്ചാല് പഴയ കാലത്തെ പാട്ടുകളില് ഓരോ വരികളിലും നല്ല അർഥങ്ങളുണ്ടാവും അത് എല്ലാവർക്കും മനസ്സിലാകും അത് കേൾക്കുമ്പോൾ തന്നെ ഓരോ വരി കേൾക്കുമ്പോഴും അതിൻ്റെ അർഥം മനസ്സിലാകും ആ എന്നാൽ ഇപ്പം പുതിയ പാട്ടുകളില് അങ്ങന പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ അങ്ങ് പാടി പോകുന്നുവെന്ന് മാത്രം അങ്ങനെ അർഥങ്ങളൊന്നുമില്ല പിന്നെ പുതിയ പാട്ടുകളിലിപ്പോൾ ഇംഗ്ലീഷ് വാക്കുകള് മലയാളം വാക്കുകളുടെ കൂടെ തന്നെ ഇംഗ്ലീഷ് വാക്കുകളെല്ലാം ചേർത്തിട്ടുള്ള പാട്ടുകളും അങ്ങനത്തെ പാട്ടുകളെല്ലാം ഇന്ന് ഉണ്ടാകുന്നത് പഴയ പാട്ടുകളിലങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല നല്ല കേൾക്കുമ്പം നല്ല ഈണമുള്ള വരികളും അത് എന്താ പറയുക മലയാളം വാക്കുകളും മാത്രം ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകളൊക്കെയാണത് പിന്നെ പിന്നത് ഇപ്പം പുതിയ പഴയ പാട്ടിനെന്ന് പറഞ്ഞാല് നല്ല നമുക്ക് എന്താ പറയുക കേൾക്കുമ്പം തന്നെ അത് ഭയങ്കര ഒരു സുഖമായിരിക്കും നമ്മള് കേട്ട് ഏതോ നമ്മുടെ പാട്ട് കേൾക്കുമ്പം തന്നെ നമുക്ക് ഏതോ ഒരു ലോകത്ത് പോയപോലെയെല്ലാം തോന്നും ആ പക്ഷേ പുതിയ പാട്ടുകളില് അങ്ങനെ ഒന്നും ഇല്ല പുതിയ പാട്ടുകള് എന്തൊല്ലോ ഇങ്ങനെ പാടി ഒരു ആ ഇത് അത്ര മാത്രമെ ഉള്ളു ആ ഇപ്പോൾ എനിക്ക് ഏത് പാട്ടാണ് ഇഷ്ടമെന്ന് ചോദിച്ചാല് പഴയ പാട്ടുകളോട് തന്നെയാണ് ഇഷ്ടം എന്താ കാരണം എന്ന് ചോദിച്ചാല് ഈ പറഞ്ഞതെല്ലാം തന്നെയാന്ന് നല്ല അർത്ഥമുള്ള വരികളാണ് പിന്നെ നല്ല കേൾക്കുമ്പോൾ തന്നെ നല്ല ഈണമാർന്ന പാട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളത് വച്ച് നോക്കുമ്പം പഴയ പാട്ടുകളോട് തന്നെയാണ് കൂടുതൽ ഇഷ്ടവും